ഡോക്ടർ അല്ലേ ആ സാറേ എനിക്ക് നല്ല പനി ഛർദ്ദി ഓക്കെ ഉണ്ടായിരുന്നു ആ ആയിട്ട് ഛർദ്ദിക്കുന്നുണ്ട് ഫുഡ് ഒക്കെ കഴിക്കുമ്പോൾ ആ തലവേദനയും ജലദോഷം ഒക്കെയുണ്ട് ഞാൻ രണ്ട് ദിവസം മുൻപേ ജോലി സ്ഥലത്തു നിന്ന് ചെറുതായിട്ട് നനഞ്ഞായിരുന്നു

ആ ഛർദ്ദി ഉണ്ട് ആ പുറത്തുനിന്നാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നത് മരുന്ന് ഒരു വൈകുന്നേരം ഒരു പാരസെറ്റാമോൾ കുടിച്ചായിരുന്നു

ആ ആ ആ ആ ഭക്ഷണത്തിന് ശേഷം ആണല്ലോ കഴിക്കേണ്ടത് ആ ആ ആ ആ ആ അവിടെത്തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ ആ ആ അപ്പോൾ ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് എങ്ങനത്തെ ഫുഡ് ഒക്കെയാണ് കഴിക്കാൻ പറ്റുക കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ ആ ആ ആ ആ ആ ആ ഇത് കുറഞ്ഞില്ലെങ്കിൽ വന്നാൽ മതിയല്ലേ കുറഞ്ഞില്ലെങ്കിൽ വന്നാൽ മതിയല്ലേ ആ ആ ശരി ആ ആ ശരി ആ ആ ശരി